ഹലോ മന്നാ ഹോട്ടലല്ലേ ആ ഞാനേ ഇപ്പോൾ കുറച്ചു മുന്നേ ഞാനേ ഓഡറേയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടീട്ടായിരുന്നു കാരണം എന്താണ് വച്ച് കഴിഞ്ഞാൽ ഞാന് രണ്ടുമൂന്ന് കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാപ്പിനകത്ത് കുറച്ച് മധുരം കൂടുതൽ ഇടാൻ വേണ്ടിട്ടായിരുന്നു ആ അതെ അതെ മധുരം കൂടുതൽ ഇപ്പോൾ ചിക്കൻ കറി ഞാൻ ഓർഡർ ചെയ്തിട്ടിണ്ടാരുന്നു അപ്പോൾ ആ ചിക്കൻ കറിയില് കുറച്ച് എരിവ് കൂടുതല് വേണം എനിക്ക് ആ ഒരു ഒരു ചിക്കൻ കറിയില് എരിവ് കുടുതലും ബാക്കിയുള്ളതെല്ലാം നോർമൽ എരിവ് കാര്യങ്ങൾ മതി പിന്നെ ലേശം ഉപ്പും എരിവ് കൂടുതൽ ഉള്ളതിൽ ലേശം ഉപ്പും വേണം അതെയതെ അതെ അത്രയും മതി ആ അതെയതെ അതെ ആ എരി എരിവ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഓവർ എരിവ് പാടില്ലാട്ടോ എനിക്ക് ഒരു മ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എരിവ് ഇല്ലേ ആ ഒരു ടൈപ് എരിവ് മതി ഓവർ എരിവ് വേണ്ട ബാക്കി ഒര് ഒര് കറിയിൽ ബാക്കിയുള്ളതിലൊക്കെ നോർമലയിട്ടുള്ള എരിവും കാര്യങ്ങളും ഉപ്പും എല്ലാം നോർമല് മറ്റേ എരിവ് കൂടുതൽ ഉള്ളതിൽ ലേശം ഉപ്പ് കൂടുതൽ ലേശം നമ്മള് കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ് ഉപ്പുണ്ടാവില്ലേ ആ ഉപ്പ് ആ അതെയതെ അതെ ആ അത്രയും മതി അത്രയും മതി ഓക്കെ ഓക്കെ അന്നാ അത്രയും മതീട്ട് മതി അന്നാ പെട്ടെന്നെനെയൊന്നു പായ്ക്ക് ചെയ്തീട്ട് വേഗം അയച്ചോളൂ ഓക്കെ ഓക്കെ